വീട്ടിൽ ഒത്തിരി പല തരത്തിലുള്ള പാത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം കുറെ പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമല്ലോ പിന്നെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻക്രിഡിയൻസ് സ്റ്റോറ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും പിന്നെ പാകം ചെയ്ത ഭക്ഷണങ്ങൾ അത് അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ പിന്നെ ചെറുതായിട്ട് ചപ്പാത്തി പരത്താനായിട്ട് അല്ലെങ്കിൽ പിന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രങ്ങൾ ഉപയോഗിക്കൂല്ലോ പിന്നെ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസുണ്ട് അല്ലെങ്കിൽ ജ്യൂസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് അതിന് വേറെ സ്പെഷ്യലായിട്ടുള്ള പാത്രങ്ങളുണ്ട് ഗ്ലാസുകളുണ്ട് അത് പിന്നെ അടച്ച് വെക്കാനായിട്ട് ഒത്തിരി പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ ഓരോരോ പാത്രങ്ങളെടുത്താലും അത് അടച്ച് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒത്തിരി പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പിന്നെ ഈ ഇപ്പോഴത്തെ മോഡേണായിട്ടുള്ളത് ഇപ്പം എന്താ പറയാ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അല്ലെ ഓപ്പൽ വെയറ് അല്ലേ പണ്ടത്തൊക്കെ ചട്ടി ഉണ്ടല്ലോ മറ്റേ ചൈന ക്ലേ ഉപയോഗിച്ചുള്ള ചട്ടികൾ മീൻ കറി വെക്കാനും അങ്ങനെയൊക്കെയുള്ള പിന്നെ കാസറോള് ഇപ്പം ചൂട് പോവാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് കാസറോള് ഗ്ലാസ് വെയേഴ്സ് ഇങ്ങനെ പല തരത്തിലുള്ള പാത്രങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ചിലതൊക്കെ എന്താ പറയാ ആൻ്റി ഈ ബ്രേക്ക് അല്ല ബ്രേക്ക് ചെയ്യാത്തത് എന്താ പറയാ താഴെ വീണാലും പൊട്ടാത്ത തരത്തിലുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴാത്ത പാത്രങ്ങൾ പിന്നെ ഈ മൈക്രോവേവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള പാത്രങ്ങൾ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലാണ് നമ്മുടെ വീട്ടിലും അവൈലബിളാണല്ലോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ വ്യത്യസ്തമാണ് ചിലതൊക്കെ എണ്ണ ഉപയോഗിക്കാതെ പറ്റുന്നതാണ് ചിലതൊക്കെ ഇപ്പം അത് കഴുകുമ്പോൾ സോഫ്റ്റായിട്ടുള്ള ഇത് വെച്ച് കഴുക അല്ലെങ്കിൽ സ്റ്റീൽ ബോളൊന്നും ഉപയോഗിക്കാതെ കഴുക അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പാത്രങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്